ചാൾസ് ബാബേജ് കമ്പ്യൂട്ടറിൻ്റെ പിതാവായി കണക്കാക്കുന്നു ആദ്യത്തെ മെക്കാനിക്കൽ കമ്പ്യൂട്ടർ ഡിഫറൻസ് എഞ്ചിൻ കണ്ടുപിടിച്ചത് ഇദ്ദേഹമാണ് കമ്പ്യൂട്ടറിൻ്റെ പിതാവായും കണക്കാക്കുന്നു പിന്നെ ആധുനിക കമ്പ്യൂട്ടറിൻ്റെ എല്ലാ ആവശ്യം ആശയങ്ങളും അദ്ദേഹത്തിൻ്റെ കീഴിലുണ്ട് പണ്ടൊക്കെ കമ്പ്യൂട്ടറ് നമ്മൾ ഉപയോഗിക്കുമ്പം നമ്മൾ ഫയലിനകത്തൊക്കെ ആക്കി ഓരോ കാര്യങ്ങൾ ഉപയോഗിക്കുമായിരുന്നു ഇപ്പം നമ്മൾ അങ്ങനെ അല്ല ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ എല്ലാം കമ്പ്യൂട്ടറിനകത്താണ് ഉപയോഗിക്കുന്നത് കമ്പ്യൂട്ടറ് ഒരു ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞനും കണ്ടുപിടിത്തക്കാരനും ആയ ഈ ഇദ്ദേഹമാണ് ഓട്ടോമാറ്റിക് ഡിജിറ്റൽ കമ്പ്യൂട്ടറ് ഇതാക്കിയത് പിന്നെ ചാൾസ് ബാബേജിൻ്റെ ഒരു ജീവിത ചരിത്രങ്ങൾ ജീവിത ചരിത്രമെന്ന് പറയുമ്പോഴത്തേനും അത് കമ്പ്യൂട്ടറ് ഉപയോ കമ്പ്യൂട്ടറ് ഉപയോഗിക്കും നമ്മൾക്ക് നല്ല രീതിയിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നമുക്ക് എന്തേലും കണ്ടുപിടിക്കണമെങ്കിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാം കമ്പ്യൂട്ടറ് കൊണ്ട് വളരെ അധികം ഉപകാരം ആണ് നമുക്കുള്ളത്